ഹാലോ എവിടുന്നാ വിളിക്കുന്നത്

അയ്യോ ഞങ്ങൾക്ക് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു ഇവിടെ അടുക്കളയിലെ ഒരു പൈപ്പിന് ഭയങ്കര ലീക്ക് ആയിരുന്നു അതിന് പുതിയൊരു പൈപ്പ് വാങ്ങിച്ചിടാൻ വേണ്ടിയാ അതിന് എന്നാ സൗകര്യം വാഷ് ബെയ്സിൻ്റെ അവിടുത്തെ അതിനെന്തോ ഒരു കേടുപാടും പറ്റി അതിപ്പോൾ ലീക്ക് ആയിട്ടിരിക്കുന്നു അത് എനിക്ക് ഉപയോഗിക്കേണ്ട ഇപ്പോൾ അത്യാവശ്യം ഉണ്ടായിരുന്നു ആ ടാപ്പിൻ്റ അവിടെ എന്തോ ചെറിയൊരു പൊട്ടലും ഉണ്ട് ഇല്ലയില്ല ഇല്ല വെള്ളം നിൽക്കുന്നില്ല അത് അത്യാവശ്യം ഉള്ള കാര്യമാ ഇനി ഞാൻ വേറെ ആരെയെങ്കിലും വിളിക്കേണ്ടി വരുമോ പുതിയ ടാപ്പ് വാങ്ങിക്കണം അപ്പോൾ പുതിയ രീതിയിലുള്ള പ്ലംബർ ഒന്ന് വാങ്ങിച്ചേക്കുമോ എന്നാലും എത്ര രൂപയാവും ആ എന്നാൽ വാങ്ങിച്ചോ വാങ്ങിക്കുമ്പോൾ നല്ലത് വാങ്ങിച്ചിടാം

അതിൽ കുറയത്തില്ലെയോ ആ വേണ്ട അതാ ആ പകുതി പൈസ പകുതി പൈസാ തരാം നാളെ അത്യാവശ്യമായിട്ടും വരണം നാളെ എന്നും ജോലിക്ക് പോകുന്ന പോലെ ഒമ്പതര ഒമ്പതരയാകുമ്പോൾ പോര് ഞങ്ങൾ ഇവിടെ ഉണ്ട് എപ്പഴാ വരുക എന്ന് പറ ഞങ്ങൾ എപ്പഴും ഇവിടെ കാണത്തില്ല ആ എന്നാലും ആ എന്നാൽ ആ എന്നാൽപ്പിന്നെ അങ്ങനെ ആക്കാം നല്ലത് നല്ലരീതിയിൽ വേണം അത്യാവശ്യമായിട്ട് വന്നേക്കണം ഒട്ടും കുറയത്തില്ലെയോ ആ ലോക്കൽ സാധനം ഇനി വാങ്ങിക്കുന്നില്ല നല്ല സാധനം തന്നെ വാങ്ങിക്കുന്നുള്ളൂ ആ എന്നാൽ ഓക്കെ താങ്ക് യൂ ആ വന്നിട്ട് പറയാം ഓക്കെ താങ്ക് യൂ താങ്ക് യൂ